ഞാൻ ഇടയ്ക്ക് ഓൺലൈനിൽ നിന്നൊരു കത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്തിയായിരുന്നു ഇതേപോലെ നല്ല റേറ്റ് കമ്മിയിൽ കിട്ടിയ ഒരു വലിയ റേറ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല കത്തിയായിരുന്നു അതിപ്പോൾ കാണാനാണെങ്കിലും ഭംഗിക്കാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കത്തിയായിരുന്നു അത് അത് കാണുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു നമുക്ക് പച്ചക്കറിയാണെങ്കിലും അതേപോലെ മാംസം പോലുള്ള ഐറ്റംസ് ആണെങ്കിലും കട്ട് ചെയ്യാനും എല്ലാത്തിനും വളരെ എളുപ്പമുള്ള കത്തിയായിരുന്നു പെട്ടെന്ന് കഴുകുമ്പോഴും വൃത്തിയാക്കുമ്പോഴൊക്കെ പെട്ടെന്നതിലുള്ള എന്തെങ്കിലും കറയോ ചളി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീനാവണൊക്കെയുണ്ട്